എൻറ്റെ എൻറ്റെ സ്ഥലത്തേ പ്രശസ്തമായ സ്കൂള്കൾ ഇല്ലൊന്നിലാണ് ഞാൻ പടിച്ചത് പ്രശസ്തമായിട്ട് അൽപ്പം സ്കൂള്കളൊണ്ട് നാലഞ്ച് സ്കൂള്കളൊണ്ട് അതില് ഒന്നിലാണ് ഞാമ്പടിച്ചത് എൻറ്റെ സ്കൂള് വെച്ച് ഞാൻ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് വളരെയധികം പ്രത്യേകതകക് ഉണ്ട് പ്രത്യുകൾതൾന്ന് പറയുമ്പോൾ കൂട്തൽ കൂട്തൽ കൂട്തല് പിള്ളാരെ സഹായിക്കാൻ ശ്രമിക്കുകയും എക്സ്ട്രാ കരിക്കുലറാക്റ്റീസിനെയൊക്കെ അവര് അവര് സമ്മദിക്കുവൊക്കെ ചെയ്യുന്നു അപ്പം നീന്തലും സ്പോട്സ്സും അതുപോലുള്ള കാര്യങ്ങൾക്കെക്കെ അവര് അവര് സമ്മദം മൂള്കേം അത്പോലെ തന്നെ മത്സരങ്ങൾക്കും ഒക്കെയായിട്ട് വേറേ പ്രാപ്തരാക്ക്കയും ഒക്കെയും ചെയ്യ്ന്നു അപ്പം പലരും നല്ല സ്കൂള്കൾക്കായി നോക്ക്ന്നു പേരിന് പേരിൻറ്റെ പേരിലല്ല പോവണ്ടേ എൻറ്റഭിപ്രായത്തിൽ ചോയിക്കുവാണെങ്കിൽ അതിന് പകരം അവര് സ്കൂളിൻറ്റെ ആ ഒരു നിലവാരത്തെയാണ് നോക്കണ്ടെ എൻറ്റെ സ്ഥലത്തെ നിലവാരത്തിൽ ഞാൻ തൃപ്തനാണ് വളരെ നല്ല നിലവാരം അവർ കൊട്ക്കുന്നൊണ്ട് ഈ സ്ഥലം ഈ സ്ഥലത്തേ സ്കൂള്കളിൽ എൻറ്റെ സ്ഥലത്തേ സ്കൂള്കൾള് പലതും വളരെ നല്ല നിലവാരം കൊട്ക്ക്ന്ന സ്കൂള്കളാണ് അതിൽ പലതും പലരുടേം പേരിലുള്ളതാണ് അതായത് പലസ്ഥ പല വലിയ സ്ഥാപനങ്ങൾടേം കീഴീൽ വര്ന്ന സ്കൂള്കളാണ് പലതും എൻറ്റെ സ്കൂള്കൾ ആതിൽ ഞാൻ തൃപ്തരാണ് അതേ സമയം വല്ല്യ നഗരങ്ങളിൽ പോവ്വ്കയാണെങ്കിൽ അവിട്ത്തെ സ്കൂള്കളിൽ ചിലപ്പം ഒരു പക്ഷേ ഇതിനേക്കാൾ ഭേദമാരിക്കാം പക്ഷേ എവിടെപ്പടിക്കുന്നൂയ്ലല്ല എങ്ങനെ പടിക്കുന്നൂവിലാണ് കാര്യമിരിക്ക്ന്നതിലാണെന്ന് കാര്യമിരിക്കുന്നതിലാണ് എന്നാണ് ഞാൻ വിശ്വസിക്ക്ന്നത് അവിടുത്തെ ഉറപ്പായും അവിട്ത്തെ പടിപ്പിക്ക്ന്നവര്ടെ നിലവാരവും അവ്ടുത്തെ പടിപ്പിക്കുന്ന സിലബസിൻറ്റെ നിലവാരം ഒക്കേം കാരണമായി വരും ഒരു കുട്ടിയുടെ ഭാവീല് ആ കുട്ടിയെ എങ്ങനെ എങ്ങനെ മോൾഡ്ഡേയ്തെടുക്കാമെന്നാണ് ടീച്ചേഴ്സ്സ് നോക്കണ്ടത് അദ്ധ്യാപകർ അദ്ധ്യാപകരും കുട്ടികളും തമ്മിൽ വളരെ നല്ലൊരു ബന്ധം സ്ഥാപിക്കണം എന്നാണ് എൻറ്റഭിപ്രായത്തിൽ എൻറ്റെ നാട്ടിൽ വളരെ നല്ല നിലവാരമുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണൊള്ളത് സ്കൂള്കളും കോളേജ്കളും എന്ന് പറയണ്ട എല്ലാ വിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അവടെ സുലഭ സുലഭമാണ് ഈ വിദ്യാസഭ്യാസ സ്ഥാപനങ്ങൾ ഈ പല സ്കൂള്കൾളും കോളേജ്കൾളും ഒക്കെയും കുട്ടികൾ നന്നായി പടിക്ക്കയും ഉന്നത വിജ യം നേട്കയും അതോടൊപ്പം വളരെ നല്ല കമ്പനികൾക്ക് ജോലി മേടിക്ക്കയും ഒക്കെ ചെയ്യ്ന്നൊണ്ട് വളരേ നല്ല നിലവാരമാണ് അവർ കൊട്ക്ക്ന്നത് ഭാഷകളും പുതിയെ സ്കില്ല്കളും ഇപ്പം കണക്കും ശാസ്ത്രൊവും അക്കൗണ്ടൻസിയും ഇങ്ക്ലീഷും പല രാജ്യ പല ഭാഷകളും ഇപ്പം ഇങ്ക്ളീഷും ഫ്രെഞ്ചും മലയാളോം ഹിന്ദിയും അങ്ങനെ പല ഭാഷകളും ഒക്കെയും അവരോഫറേയ്ന്നൊണ്ട് പഠിപ്പിക്കാൻ അതുപോലെ തന്നെ പല തരം കായിക വിനോദങ്ങളും നീന്തലും സ്പോട്സ്സും ഫുട്ബോളും ക്രിക്കറ്റും എന്നിവ കാര്യങ്ങൾളും അവർ വളരെ വളരേ നല്ല തീരുമാനങ്ങളെട്ക്ക്ന്നൊണ്ട് അത് അത് പ്രൊവൈഡി ചെയ്യുന്നുണ്ട് അതില് പിള്ളാര് കളിക്ക്ന്നതും ഒക്കെയും രാഷ്രാട്രത്തിന് രാഷ്ട്രത്തിൻറ്റന്നെ നല്ല ഭാവിക്ക് പ്രയോജനഞ്ചെയ്യും ഈ നിലവാരമുള്ള സ്കൂള്കളിൽ പടിക്കുന്നതിനോട് എനിക്ക് യോജിപ്പൊണ്ട് കാരണം ഒരു ഒരു ഒരു കുട്ടി പടിക്ക്ന്ന സ്കൂൾന് നെലവാരവൊണ്ടെങ്കിലേ ആ കുട്ടി വളർന്ന് വരുമ്പോ ആ കുട്ടിക്ക് നെലവാരവൊണ്ടാവത്തൊള്ളു ഇല്ലന്നൊണ്ടെങ്കി ആ കുട്ടീടെ നിലവാരം വളരെ മോശവായ്പ്പോകും ഒരു കുട്ടീടെ നിലവാരം നല്ലതായാൽ അത് രാജ്യത്തിനും നല്ലതാണ് ഒരു കുട്ടിയുടെ നിലവാരം മോശവായാൽ അത് രാജ്യത്തിനും മോശവാണ് കാരണം ഇന്നത്തെ കുട്ടികളാണ് നാളത്തെ തലമുറ അപ്പം നാളത്തെ രാജ്യത്തെ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ കുട്ടികളാണ് അപ്പം കുട്ടികളെ സ്കൂളിൽ വിടുകെയും ഗെവൺമെൻറ്റ് സർക്കാര് ഗെവൺ ഗെണ്മെൻറ്റ് സ്കൂള്കൾളും അതുപോലെ തന്നെയൊള്ള സ്കൂള്കൾള് നമ്മടെ നാട്ടില് ഒര് കൊറച്ചുങ്കൂടെ ചിന്തിക്ക്കേം ഇതിനേ ഒരു കേന്ദ്രബിന്ദുവായെട്ക്കുകയും അതിനേ വൽക്കരിക്ക്കേം ഒക്കെ ചെയ്യേണ്ടത് വളരെ അനിവാര്യവാണ് അതുകൊണ്ട് തന്നെ ഗെവണ്മെൻറ്റ് സർക്കാർ സർക്കാർ സ്കൂള്കൾള് സ്കൂളുകൾക്ക് വേണ്ടി ഒരു ഇത്ര തുക മാറ്റി വക്കേണ്ടത് അത്യാവശ്യമാണ് സ്കൂള്കൾടെ വൽക്കരണത്തിനും ടീച്ചർമാർടെ വൽക്കരണത്തിനും കുട്ടികൾടെ വൽക്കരണത്തിനും അവർടെ ആരോഗ്യത്തേം ഒക്കെ ഇപ്പം പല സ്കൂള്കൾളും സർക്കാരിൻറ്റെ പല സ്കൂള്കൾളും ഉച്ചക്ക് ഭക്ഷ്ണോം പാലും അങ്ങനത്തെ പോഷകാഹാരങ്ങളും ഒക്കെയും കൊടുത്ത് അവർക്ക് നല്ല ആഹാരം അവർക്ക് നല്ല ജീവിത ശൈലീം ഒക്കെയും കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നത് എപ്പോഴും വളരെ നല്ലതാണ് കാരണം കാരണം കുട്ടികൾ കുട്ടികൾക്ക് നന്നായി പടിക്കാണം എങ്കിൽ അവർക്ക് നല്ല പോഷകാഹാരങ്ങളും പോഷകങ്ങളും അവർടെ ആരോഗ്യം വളരെ സ്റ്റേബിളായിരിക്കണം അവർടെ ആരോഗ്യം വളരെ നല്ലതായിരിക്കണം എങ്കിൽ മാത്രമേ അവർക്ക് കുട്ടികൾക്ക് നന്നായിട്ട് പഠിക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റത്തൊള്ളു അപ്പം അതുകൊണ്ട് തന്നെ നന്നായിട്ട് നല്ല അതുകൊണ്ടന്നെ എൻറ്റെ നാട്ടിൽ കുട്ടികൾക്ക് വളരെ നല്ല നല്ല നല്ല സ്റ്റാൻറ്റേഡൊണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു